ആ ഇത് ഉദയകുമാറല്ലേ ഓട്ടോ ഡ്രൈവർ ഇതില്ലേ നമുക്ക് ഒന്ന് പള്ളിക്കൽ ബീച്ച് വരെ ഒരു ഓട്ടം പോവാണമായിരുന്നു അല്ലപ്പാ എത്രയാണ് വാടക ഉം ആ അതെ ഇപ്പോൾ ഒരു അഞ്ച് ആ ഇല്ല ഒരു അഞ്ച് മണിക്ക് അത് ഇത് എത്ര ആ ഉം നമുക്ക് ആ ഇത് ആ അത് സാരമില്ല പക്ഷേ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം അല്ല ആടെ പാ ആടെ പാർക്കിൽ പോവുന്നതല്ലേ അപ്പോൾ കുറച്ച് സമയം ആവും അതിൽ തന്നെ റിട്ടേൺ വരാൻ ആ ഒരു മണിക്കൂർ

ഞാൻ ഞങ്ങളൊരു അഞ്ച് അഞ്ച് പത്താവുമ്പം എല്ലാം ആടെ എത്തും ആ ഉം

ആ ശരി ശരി അപ്പം ഞാൻ ആ നമ്പറിൽ വിളിക്കാം ഓ

പാസഞ്ചർ ഞങ്ങളൊരു അഞ്ചാളുണ്ടാവും

ആ ഇല്ല ഇല്ലപ്പാ ഞങ്ങൾ രണ്ട് പിള്ളാർ കുട്ടികൾ അച്ഛന് ഞാനും അമ്മയും എല്ലാം നമ്മൾ അഞ്ച് ആളുണ്ട് ആ ആ ആ അത് അപ്പം ഞാൻ ആടെ എത്തിയിട്ട് നിങ്ങളെ ഒന്ന് വിളിക്കാം ഞങ്ങൾ ഇപ്പം വരുന്നത്ര ഇറങ്ങിയിട്ടില്ല വീട്ടിൽ നിന്ന് ആ അപ്പോൾ പിന്നെ ഇവിടുന്ന് ബസ്സിൽ എത്തിയിട്ട് പുതിയ സ്റ്റോപ്പിൽ പിന്നെ ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അല്ലേ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് എടുക്കാൻ അപ്പം നമ്മൾ അങ്ങനെ വരുന്നതിൽ അങ്ങോട്ട് വരാം ആ ശരി ആ ഓക്കേ ഓക്കേ ഓക്കേ ശരി